നമ്മുടെ നാട്ടില് ഒരുപാട് സർക്കാരിൻ്റെ പദ്ധതികള് കൊണ്ടു വരുന്നുണ്ട് അതിപ്പോ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അതുപോലെ തന്നെ ഒരുപാട് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതികള് വെള്ളത്തെ വെള്ളമില്ലാത്തവർക്ക് വെള്ളത്തിനുള്ള പദ്ധതികള് ഇപ്പോൾ വഴിയില്ലാത്തവർക്ക് അത് റോഡ് കിട്ടാ റോഡിനു വേണ്ടിയുള്ള പദ്ധതികള് അങ്ങനെ ഒരുപാട് പദ്ധതികള് നമ്മുടെ നാട്ടിലുണ്ട് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ചില ആളുകൾക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ട് അത് പാർട്ടികളെ അനുസരിച്ചിട്ടാണ് എന്താ പറയുക പ്രയോജനപ്പെടുന്നത് ഇപ്പോൾ ഇപ്പോൾ എസ് എഫ് ഐ പാർട്ടി അതായത് നിൽക്കുവാണെങ്കില് അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് അവരെല്ലാം കൊടുക്കും അതായത് റോഡ് വേണമെങ്കിൽ റോഡ് വെട്ടി കൊടുക്കും അതുപോലെ തന്നെ വെള്ളം വേണമെങ്കിൽ വെള്ളം പദ്ധതി കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ വീട് വേണങ്കില് വീട് വെച്ച് കൊടുക്കും അങ്ങനെ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നേ ആ പാർട്ടിയുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത് ചിലവര് മാത്രാണ് നമ്മുടെ ഒന്നും നോക്കാതെ മൊത്തത്തിലുള്ള ആൾക്കാരെ എന്താ പറയുക് നോക്കി പ്രവർത്തിക്കുന്നുള്ളൂ അപ്പം എല്ലാവർക്കും വീടില്ലാത്തവർക്ക് ഇപ്പം എന്ന് പറയുന്നത് വീടില്ലാത്തവർക്ക് എല്ലാവർക്കും വീട് വേണം എന്നാണ് പറയുന്നത് എന്നാൽ കൂടി നമ്മുടെ നമ്മുടെ ഇപ്പോൾ ചുറ്റുപാടും നോക്കി കഴിഞ്ഞാൽ എത്ര വീ എത്രപേർക്ക് സ്വന്തയിട്ട് വീടുണ്ടാവില്ല ഇങ്ങനെ വാടകക്കാണെങ്കിലും അതുപോലെ തന്നെ ഷെഡ്ഡിൽ ആണേലും താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തില് എന്നാലും ഇപ്പോൾ കൊടുത്തിട്ട് ഒരു ആറ് ഏഴ് വർഷം കഴിയുമ്പോൾ പിന്നെ അവർക്കന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം അതുകൊണ്ട് അതാണ് പിന്നെ കുറെയൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട് നമുക്ക് വെള്ളം കിട്ടി വെള്ളം പഞ്ചായത്ത് വെള്ളം കൊണ്ടു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വഴിയിണ്ട് ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ വഴി കോൺക്രീറ്റ് ഇട്ടു അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് ഉപകാരമുള്ള കാര്യം തന്നെയാണ് എന്നാലും ചില ആൾക്കാര് ചിലവർക്ക് വേണ്ടി മാത്രം ചെയ്യുക അങ്ങനെയാണ് പദ്ധതികളിൽ ഉള്ളത്